വയനാട് ജില്ലയിലെ ആളുകൾ പ്രധാനമായിട്ടും നേരിടുന്ന വെല്ലുവിളിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ഈ ജോലി കിട്ടാത്ത കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വെല്ലുവിളീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാരണം നല്ലോണം പഠിച്ച എം ബി എ വരെ പഠിച്ച അപ്പോൾ അല്ലെങ്കിൽ എം ടെക്ക് അങ്ങനത്തെ അതായത് സിവില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാൾക്കും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ജോലി കാര്യങ്ങളൊന്നുമില്ല ഇവരൊക്കെ മെയിൻ ആയിട്ട് ഇപ്പോൾ കൂലിപ്പണി അങ്ങനത്തെ ഡ്രൈവർ അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പം നല്ല രീതിയിൽ പഠിച്ചവർക്കുമില്ല പഠിക്കാത്ത അവർക്കുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ജോലി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് ഇവിടൊരു മുൻഗണനയോ അങ്ങനത്തെ ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല സർക്കാർ അതിനെന്തെങ്കിലും ഒരു നല്ലൊരു പദ്ധതിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഇവർക്ക് ജോലി കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കും നല്ലൊരു ഗുണമായിരിക്കും ഇപ്പം ചിലർക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ വല്ലാത്തൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവരൊക്കെ കുടുംബം പോറ്റുന്നത് ഓട്ടോറിക്ഷ ഓടിച്ചും അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള വരുമാനം കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് തന്നെ പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ വനങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണമെന്ന് വച്ചാലിപ്പം ഇപ്പം വനത്തിൽ കയറി നമ്മൾ പലരീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് മരം വെട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സർക്കാരടക്കം എന്താ പറയാ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് തേക്കുംകാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടുന്നുണ്ട് സർക്കാരിൻ്റെ ലാഭം നോക്കിയിട്ടാണ് സർക്കാർ എന്താ പറയാ ഈ തേക്കൊക്കെ നടുന്നത് അപ്പോൾ സർക്കാർ ഈ തേക്ക് വെട്ടുന്നതിനനുസരിച്ച് സർക്കാരിന് നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും എന്താ പറയാ ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് അതും ഒരു പ്രശ്നമാണ് അത്രേയൊക്കെ ഉള്ളു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ